ആ അതേല്ലോ ആരാണ് ആ പറയൂ വൈഗേനെ കണ്ടിട്ട് രണ്ട് മൂന്ന് ദിവസമായല്ലോ എന്ത് പറ്റീ ആണോ ഹോസ്പ്പിറ്റല് ആശുപത്രീൽ അഡ്മിറ്റാണോ ആണോ ആ ആ ഓക്കെ ഓക്കെ ആ ലീവിന് വേണ്ടി വിളിച്ചതാണോ ആ കുഴപ്പം അത് കുഴപ്പമില്ല പക്ഷേ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളോസ്പ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടറോടൊരു മെഡിക്കൽ സർട്ടിഫിക്കെറ്റും കൂടെ നമുക്ക് വേ ആവശ്യമുണ്ട് നമുക്ക് അറ്റൻടൻസിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യാനാണ് അപ്പം അത് ഇല്ലെങ്കിൽ അത് ആബ്സെൻറ്റായി പോം നമുക്ക് ഇത്ര പെ ഇത്ര ശതമാനം എന്താണ് ഹാജറ് നമ്മുടെ ടെക് അറ്റൻഡൻസ്സ് റെജിസ്റ്ററിലില്ലെങ്കിൽ നമുക്കത് എക്സാമെഴുതിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനൊരിതുണ്ട് അപ്പം അതുകൊണ്ട് ഇപ്പോൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യാണെങ്കിൽ അതിന് വലിയ പ്രശ്നം വരില്ല പിന്നെ ഓൾറെഡി വൈഗ നേരത്തെ കുറെ ലീവ്കളെട്ത്തിട്ടുണ്ട് അതുകൊണ്ട് അറ്റൻടൻസിൻ്റെ ഷോട്ടേജുണ്ട് താനും പിന്നെ ഇപ്പോൾ എടുത്ത രണ്ടാഴ്ച്ച കഴിയുമ്പോൾ അവർക്കെക്സാമാണ് ഇപ്പോൾ നമ്മുടെ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ടെക്സ്ററ് ബുക്ക്കളെല്ലാം പാഠ ഭാഗങ്ങളെല്ലാം പഠിപ്പിച്ച് കഴിയേം ചെയ്തു ആ അപ്പോൾ ഇനിയുള്ള സമയം അവർക്ക് ഒന്നൂടെ ആ ഇമ്പോട്ടൻടായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യത്തോടു കൂടി പറഞ്ഞ് കൊടുക്കുന്നൊരു സമയമാണ് എല്ലാ വിഷയങ്ങളും അപ്പോൾ ഇനി മാറി കഴിയുമ്പോൾ ഇനി ഒരിക്കലും ഒന്നും ലീവെട്ക്കാത്ത രീതീൽ കുട്ടിയെ വിടുക ഒന്ന് നന്നായിട്ട് ശ്രദ്ധിക്കുക അധികം പുറത്തേക്ക് വെയിലും മഴയൊന്നും കൊള്ളിക്കാതെ എക്സാം കഴിയുന്നവെരെയൊന്ന് നോക്ക് ശ്രദ്ധിയ്ക്കാട്ടോ ഇടക്കിടക്ക് വരുന്നുണ്ടല്ലോ വൈഗയ്ക്കിങ്ങനെ അതെന്താണ് ആണോ ആ ഓക്കെ ഓക്കെ എക്സാം വെരെയൊന്ന് ശരിക്ക് ശ്രദ്ധിക്കണം നോട്ട് ബുക്കിൽ നോട്ട് ബുക്കിൽ ഒന്നെങ്കിൽ ഞാനയച്ച് തരാം വേറെ കുട്ടികളോട് പറഞ്ഞിട്ട് അതല്ലായെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് അഛനോ അമ്മയോ ഒന്ന് വന്നാൽ ഞാനാരുടെയെങ്കിലും ഒരു നോ തന്നു വിടാം നിങ്ങൾ ഫോട്ടോസ്റ്റാറ്റ് എടുക്കയോ അത് എന്നിട്ട് കുട്ടീനേപ്പോലെ സൗകര്യമ്പോലെ നിങ്ങളെഴുതിച്ചെടുത്താൽ മതി ഇവിടെ സ്കൂൾൽ വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളത് ഒന്നോടെ പഠിപ്പിച്ച് കൊടുത്തോളം അത് വിഷമിക്കണ്ട കാര്യമില്ല കേട്ടോ ആ ആ ആ ഈ ആ അത് കുഴപ്പമില്ല പക്ഷേ ഈ ഈ ഒന്നാമത്തെ വയ്യാതിരിക്കുമ്പോൾ ഈ ഫോണിലും കുട്ടിക്ക് കുറച്ച് കുട്ടിക്ക് കുറച്ച് അതൊരു ബുദ്ധിമുട്ടായി ആ പറഞ്ഞ് കൊടുക്കയോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റെടുത്തിട്ട് കൊടുക്കയോ ചെയ്താലവള് തന്നെ എഴുതിക്കൊള്ളും കേട്ടോ തന്നെ എഴുതീട്ട് അത് കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ടീച്ചേഴ്സ് ഹെൽപ്പ് ചെയ്ത് ചെയ്തോളാം കേട്ടോ അപ്പം ര ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് സർട്ടിഫിക്കറ്റ് ഡോക്ടറോട് മേടിക്കണം രണ്ട് ഇനി വ അസുഖം വരാതെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പരീക്ഷ കഴിയുന്ന വരെ കേട്ടോ അറ്റ്ലീസ്റ്റത്രേം സം ലീവും തീർന്നിരിയ്ക്കാണ് ആ ഓക്കെ ഓക്കെ ആ അത് കഴിഞ്ഞിപ്പം ചൂടല്ലേ കൂടുതൽ ചൂടാകുമ്പോൾ ഒത്തിരി ഹെവിയായിട്ടുള്ള അതായത് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കൊടുക്കാതെ നോക്കുക അപ്പോൾ എന്താ ഈ എന്നാൽ ഒത്തിരി നോൺ വെജ്ജൊക്കെ കൊടുക്കാതെ വെജിറ്റേറിയനും പിന്നെ ഫ്രൂട്സ്സ് അങ്ങനെ ശീതള പാനീയങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാക്കി കൊടുക്കുക അങ്ങനെ യക്കെ കൊടുക്കുക അപ്പം നമ്മുടെ ശരീരത്തിനും അതൊരു സുഖാവും പുറത്തൂന്നൊള്ള ഭക്ഷണോക്കൊന്നവോയിടെയ്തിട്ടേ കുറച്ച് നാൾ നോക്ക് കേട്ടോ ഓക്കെ വൈഗ എവിടെപ്പോയി വീട്ടിലുണ്ടോ ആ ശരി ശരി ശരി ശരീ കേട്ടോ ഓക്കെ